മാധ്യമങ്ങളഭിപ്രായ സ്വാതന്ത്ര്യം പ്രാവര്ത്തികമാക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാല് ഒരു പരിധിവരെ അവര് പ്രാവര്ത്തികമാക്കുന്നുണ്ട് പക്ഷെ പ്രാവര്ത്തികം ആക്കുന്നില്ല എന്നും നമുക്ക് പറയാന് സാധിക്കും കാരണം മാധ്യമങ്ങള് തന്നെ ഓരോ ചര്ച്ചകള് ദിനംപ്രതി നടത്തുന്നത് നമുക്ക് കാണാവുന്നതാണ് ഈ ചര്ച്ചകളിലെല്ലാം തന്നെ അവസാനം കലഹങ്ങളിലേക്കു പോകുന്നത് വാക് തര്ക്കത്തിലേക്കും പോകുന്നത് നമുക്ക് കാണാവുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരാള്ക്കു പറയ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോള് ഒരാള് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോള് അതിനിടയിലേക്ക് ഇടപെടലുകള് നടത്തുന്നത് ഒരു പ്രവണതയായിട്ട് നമ്മള് കാണുന്നുണ്ട് മാധ്യമങ്ങള് ഈ ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ടെനിക്കു തോന്നുന്നില്ല കാരണം ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമ്മളവിടെ വില നല്കുന്നില്ല ഒരു വ്യക്തിയുടെ അഭിപ്രായം അറിയുന്നതിനു വേണ്ടിയാണ് വ്യക്തിയെ നമ്മളാണ് ചര്ച്ചയിലേക്കു വിളിച്ചു വരുത്തുന്നത് പക്ഷെ അവരെത്തന്നെ നിര്ത്തിപ്പിക്കുന്ന ഒരു വെറുപ്പിക്കുന്ന ഒരു രീതി നാം കണ്ടു വരുന്നുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളഭിപ്രായ സ്വാതന്ത്ര്യം പ്രാവര്ത്തികമാക്കുന്നുണ്ടെന്നു ചോദിച്ചാല് ഇല്ലെന്നും പറയാം ഒരു പരിധിവരെ ഉണ്ടെന്നും പറയാം അഭിപ്രായ സ്വാതന്ത്ര്യമെന്നു പറയുമ്പോൾ ചര്ച്ചയ്ക്ക് ഒരു ചര്ച്ചയ്ക്കിടയില് അവര് ഒരു വ്യക്തി നല്ല രീതിയില് സംസാരിക്കാം ചീത്ത രീതിയില് സംസാരിക്കാം അപ്പോള് അവരെങ്ങനെ സംസാരിക്കുന്നത് നമുക്കു കണ്ടു മാത്രമെ കഴിയാന് പറയാന് കഴിയുള്ളു അതുകൊണ്ട് അവര് അനാവശ്യമായി സംസാരിക്കുമ്പോള് മാധ്യമങ്ങള്ക്ക് അതിനെ തടയിടേണ്ടതൊരു അവസ്ഥയുണ്ട് അതിന് അതല്ലാതെ വേറൊരു പോംവഴിയില്ല അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് സ്മ അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമങ്ങള് നല്കുന്നുണ്ട് എന്നു തന്നെ വേണമെങ്കില് പറയാം പിന്നെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന കാര്യം നമ്മുടെ വിവരങ്ങളുടെ സ്വകാര്യത മാധ്യമങ്ങള് സൂക്ഷിക്കുന്നുണ്ടോയെന്നു ചോദിച്ചാല് ഉണ്ട് ഇല്ലയോ ചോദിച്ചാല് ഇല്ല കാരണമിപ്പോളൊരു പ്രശ്നം ഒരു പ്രശ്നമവർ കവർ ചെയ്യുകയാണെങ്കില് ആ പ്രശ്നത്തെ ബാ ആ പ്രശ്നത്തില് വാ ബാധകമായ ആള്ക്കാരുടെ ആ പ്രശ്നത്തില് ബാധകമായ ആള്ക്കാരുടെ കാര്യങ്ങള് ഇവര് പുറത്തു വിടുന്നൊരു പ്രവണത നമ്മള് കാണുന്നുണ്ട് അവരെ വേണ്ടാത്ത രീതിയില് വലിച്ചിഴക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് മാധ്യമങ്ങളതുകൊണ്ട് ആള്ക്കാര്ക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് ഒറ്റ നോട്ടത്തില് മനസ്സിലാക്കാന് സാധിക്കുന്നില്ല പല മാധ്യമങ്ങളും തെറ്റായ രീതിയില് തെറ്റായ രീതിയിലിത് നല്കുന്നതായിട്ട് നമുക്കു കാണാന് സാധിക്കും അതുകൊണ്ട് മാധ്യമങ്ങളുടെ വിശ്വാസ്യ വിശ്വസ്ഥത നമുക്ക് എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കണ്ണുമടച്ചു വിശ്വസിക്കാന് വളരെ പാടാണ് അതുകൊണ്ട് മാധ്യമങ്ങളുടെ നമ്മുടെ വിവരങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നുണ്ടോയെന്നു ചോദിച്ചാല് ഒരു ഒരൻപത് ശതമാനമില്ല അൻപത് ശതമാനമുണ്ട് എന്നേ നമുക്കു പറയാന് സാധിക്കുകയുള്ളു